ഈ വിദ്യാഭ്യാസ ലോണെടുത്ത് പഠിക്കുന്നവരൊക്കെ എന്താ പൊതുവേ വീക്കായിട്ടുള്ള അതായത് കാശ് കുറവായിട്ടുള്ളവരായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് ഒടുക്കത്തെ പലിശയിലാണ് ഇവര് എന്താ എജ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നത് അപ്പം എന്താ ഒന്നാമത് പൈസയില്ലാത്തവരായിരിക്കും ഇതെടുത്ത് ആയിരിക്കും മക്കളെ പഠിപ്പിക്കുന്നത് അപ്പം ആ കൂടത്തിൽ ഈ ലോണും കൂടെ ആകുമ്പോള് എന്താ ഇവർക്കത് ഇവർക്കത് ഇരട്ടി ആഡ് അല്ലേ ആവുകയുള്ളൂ അപ്പം ഇതൊരിക്കലും ഗ്രാമങ്ങളിൽ ഉള്ള കുട്ടികൾക്കിത് നല്ല കാര്യമാണെന്ന് തോന്നുന്നതേ ഇല്ല ഇത് കാശ് കുറവ് ഉള്ളവർ ആയിരിക്കണമല്ലോ ഈ ലോണെടുത്ത് ലോണെടുത്ത് പഠിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കാശ് കൊടുത്ത് പഠിപ്പിക്കാവുന്നത് അല്ലേ ഉള്ളു അപ്പം കാശില്ലാത്തവര് ലോണെടുത്ത് പഠിപ്പിക്കുമ്പം അതിനിപ്പം ബാങ്കിൽ നിന്നവർ ഇതാക്കുന്നത് അവർക്ക് താങ്ങാൻ പോലും പറ്റാത്ത അത്ര പലിശയായിരിക്കും അപ്പോൾ അതത്ര നല്ല കാര്യവാണെന്ന് തോന്നുന്നില്ല നല്ല കാര്യവാണെന്ന് തോന്നുന്നില്ല അത്രയേ ഉള്ളു